സ്പോർട്ട്സെന്ന കല അല്ലെങ്കിൽ കായിക രംഗം സത്യം പറഞ്ഞാൽ ചില സമയങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു രംഗം തന്നെയാണ് ആ സമയങ്ങളിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണ് ഇപ്ലോൾ പല രീതികളിൽ ഇപ്പോൾ ക്രിക്കറ്റ് കളിക്ക ആണെങ്കിലോ ഫുട്ബോൾ കളിക്ക ഓട്ടത്തിലാണെങ്കിലും എന്താ പറയുക ലോങ്ങ് ജമ്പ് ഹൈ ജമ്പ് അങ്ങനത്തെ കാര്യങ്ങളിലാണെങ്കിലും ഇപ്പോൾ അത്ലെറ്റിക്സിലാണെങ്കിലും അപകടങ്ങൾ ഉണ്ടാവാം ഉണ്ടാവൂല്ലാന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതിന് നമുക്ക് ഇപ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങൾ അതായത് ഇപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ എന്താ പറയാ അപ്പോൾ അവരെ നമ്മളെ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലുകളുണ്ട് അല്ലെങ്കിൽ സ്പോർട്സ് കൗൺസിലിൻ്റെ അടിയിലുള്ള ഹോസ്പിറ്റൽ കാര്യങ്ങൾ അങ്ങനെയുണ്ട് അപ്പോൾ അവിടെയൊക്കെ അവർക്ക് അവിടെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സയും കാര്യങ്ങളൊക്കെ എന്താ മാക്സിമം സൗജന്യമാക്കാൻ നോക്കാം പിന്നെ അവർക്ക് കൂടുതൽ അപകടം പറ്റിയെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അപകടം അപകടത്തിൽ കൂടുതലായിട്ട് ഇനി അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നാലവർ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ സ്പോർട്സ് സ്പോർട്സിനും അത്യാവശ്യം ആണെങ്കിൽ നമുക്ക് അവർക്ക് ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും തൊഴിലോ കാര്യങ്ങളോ ഇപ്പോൾ ഗവൺമെൻറ്റ് അണ്ടർല് വരുന്ന സ്കീമ് വെച്ചിട്ട് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് നമ്മൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ